ബൈക്കിംഗ് എന്നു പറയുമ്പോൾ ഇപ്പോഴത്തെ ഏതൊരു മനുഷ്യനും ഇപ്പോൾ ആണാവട്ടെ പെണ്ണാവട്ടെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് യാത്ര എന്നുള്ളത് അല്ലേ ഇത് യാത്ര പോകുമ്പോൾ അതിലൊരു അസെറ്റാണ് എന്തിനാണ് പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ ഈ കാലത്തൊക്കെ സോളോ ട്രിപ്പ് ബുള്ളറ്റിന്മേൽപ്പോയി സോളോ ട്രിപ്പടിക്കാനാണ് എനിക്കിഷ്ടം ഇല്ലേ എല്ലാവരും അടിക്കുന്ന ഡയലോഗാണ് ബുള്ളറ്റിന്മേൽപ്പോയി സോളോ ട്രിപ്പടിക്കാനാണ് എനിക്കിഷ്ടമുള്ളത് അതുപോലെത്തന്നെ ബുള്ളറ്റിന്മേൽ ഒരു ബുള്ളറ്റിന്മേൽ ഇങ്ങനെ യാത്ര ഇങ്ങനെ ചെയ്യുക രാത്രി ആവട്ടെ പകലില്ല പകലില്ല രാത്രിയൊന്നും ഇല്ലയെന്നുതന്നെ രാപ്പകലിങ്ങനെ ഇങ്ങനെ ബുള്ളറ്റിന്മേൽ ഇങ്ങനെ പോകുമ്പോൾ എന്തു സുഖമല്ലേ എന്തൊരു ഭംഗിയാണ് അപ്പോഴൊക്കെ നമ്മൾ നോക്കുമ്പോൾ പ്രകൃതിയൊക്കെ എന്തൊരു ഭംഗിയാണ് കാരണം നമ്മളിപ്പോൾ പോകുന്ന നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭത്തിലൂടെ നമ്മളപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് ബൈക്കിംഗ് എന്നു പറയുമ്പോൾ ഞാൻ ആദ്യം ബൈസൈക്കിള് കാര്യങ്ങളൊക്കെ പഠിച്ചു കൂടുതൽ സമയം ഞാൻ സൈക്കിളായിരുന്നു ഓട്ടിയിരുന്നത് അങ്ങനെ ഒരിക്കൽ ബൈക്കെടുത്തു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ ഇങ്ങനെ നോക്കി ഉരുട്ടിക്കൊണ്ടുപോയി പിന്നീട് ചാവി തിരിച്ച് ഇങ്ങനെ മെല്ലെമെല്ലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ പഠിച്ചു പഠിച്ചു ഇപ്പോൾ എല്ലായിടത്തേക്കും ബൈക്കായിട്ടാണ് ഞാൻ പോകാറുള്ളത് അപ്പോൾ അതിലൊരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തവണ റോഡിൽ തിരക്കുണ്ട് അത്യാവശ്യം ഇല്ലെങ്കിലും ചെറിയ തിരക്കുണ്ട് അർജൻ്റായിട്ട് ഒരു സ്ഥലത്ത് വരെ എത്താനുമുണ്ട് എങ്ങനെയാണ് സഭയായിട്ടും കുട്ടികളുടെ അടുത്ത് ബൈക്ക് കിട്ടിയാൽ എന്താണ് അത്യാവശ്യം ഒരു സ്പീഡിലാണ് പോവല് അപ്പോൾ ഇങ്ങനെ ആക്സിലേറ്റർ ഇങ്ങനെ കൊടുത്തങ്ങനെ തുടങ്ങി അത്യാവശ്യം നല്ല ഇതിൽ കൊടുത്തു അവിടെ നിന്ന് ഓപ്പോസ്റ്റ് ഒരു ലോറി വരുന്നുണ്ട് ഞാൻ അത്ര ശ്രദ്ധയിൽ പെട്ടിട്ടില്ലായിരുന്നു ആ ലോറിയങ്ങാണ്ട് വന്നതും ഞാനത് കട്ട് ചെയ്തുവെന്ന് പറയാം ഒപ്പമാണ് ഒരേ സമയം തല നാരിഴയ്ക്കാണ് അന്ന് രക്ഷപ്പെട്ടത് ഇതാണ് ബൈക്കിങ്ങിൽ മറക്കാനാവാത്ത ഒരനുഭവം എന്നുള്ളത് അന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ് ഇപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നത് അന്ന് രക്ഷപ്പെട്ട ജീവനാണ് അപ്പോൾ ഇങ്ങനത്തെ ഇതുണ്ടാവും പിന്നെ അതുപോലെതന്നെ ബൈക്കിന്മേൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്ന രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോവുമ്പോൾ എന്തു രസമാണ് അതൊരു നല്ലൊരു എക്സ്പീരിയൻസായിട്ട് ഒരു അനുഭവമായിട്ട് എന്താണ് മറക്കാനാവാത്തൊരു അനുഭവമായിട്ട് എന്താണ് പറയാൻ പറ്റും നൈറ്റിങ്ങന ഒരു ഒരുമണി രണ്ടുമണിയൊക്കെ നേരത്ത് ഇങ്ങനെ ബൈക്കിന്മേൽ ഇങ്ങനെ തനിച്ചിങ്ങനെ ആരുമില്ലാത്ത റോഡിലൂടെ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഒരേ സമയം പേടിയും അതേ സമയം സന്തോഷവും ഒരു ആഹ്ളാദവും ഒരു എഞ്ചോയ്മെൻ്റും ഒക്കെ കിട്ടണ സമയക്കാലമാണ് അതെന്നുള്ളത് അതിനെ ഇങ്ങനത്തെ ഒരു വ്യത്യസ്ത കുറേ അനുഭവങ്ങളെന്താണ് ബൈക്കിങ്ങിലൂടെ എന്താണ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുതന്നെ പറയാൻ പറ്റും